മരുന്നുകൾ ഇപ്പം താങ്ങാൻ പറ്റാവുന്ന രീതിയിൽ നമുക്ക് എല്ലാം ലഭിക്കുന്നുണ്ട് എന്നാൽ ഒരു സമയത്ത് മരുന്നിന് ഭയങ്കര വിലയായിരുന്നു നമുക്ക് താങ്ങാൻ പറ്റാത്ത വിലയായിരുന്നു വരുമാനത്തിൻ്റെ ഒരു വലിയ ശതമാനവും അതിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ട ഒരു സമയം നമുക്കുണ്ടായിരുന്നു എന്നാലിപ്പോൾ സർക്കാരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സൗജന്യമായിത്തന്നെ മരുന്നുകൾ ലഭിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ സർക്കാരാശുപത്രി പോയാൽ വലിയ വലിയ ടെസ്റ്റുകൾക്ക് പോലും നമ്മൾ കുറച്ച് പൈസ അടച്ചാൽ മതി നമ്മളിനി ബി പി എൽ കാർഡ് കാണിക്കുവാണെങ്കിൽ അതിലും കുറച്ച് പൈസ അടച്ചാൽ മതി പിന്നെ നമുക്ക് മരുന്നുകളൊക്കെ സൗജന്യമായിട്ട് നൽകും ഇൻജെക്ഷൻ സൗകര്യമായിട്ട് നൽകും അങ്ങനെ നമ്മളെ അവിടെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടിപ്പോൾ ആരോഗ്യ മേഖലയിൽ പിന്നെ മരുന്നുകൾ സംബന്ധിച്ചിടത്തോളം ഇപ്പം ജനൗഷധി പോലുള്ള സംരഭങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ മരുന്ന് സ്റ്റോറിന്ന് വാങ്ങിക്കുന്നതിനെക്കായി പകുതി വില കൊടുത്താൽ മതി അതിലും കുറച്ച് കൊടുത്താൽ മതി നമുക്ക് മരുന്നുകൾ കിട്ടാൻ അതൊരു വളരെ നല്ല കാര്യമാണ് നമുക്ക് കോവിഡൊക്കെ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് പൈസ ഇല്ലാത്ത സമയായിരുന്നു ആ ഒരു സമയത്ത് നമുക്കിങ്ങനെ മരുന്ന് കിട്ടുന്നതൊരു വലിയ കാര്യമാണ് മരുന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല്ലല്ലോ അപ്പം അന്ന് ജോലിയൊക്കെ ഇല്ലാത്ത സമയത്ത് ആ ഒരു വരുമാനം ഇല്ലാത്ത സമയത്ത് ഗവണ്മെൻറ്റിങ്ങനെ മരുന്ന് പ്രൊവൈഡ് ചെയ്തതും അതൊക്കെ ഒരു വലിയ നല്ല കാര്യമാണ് ഇപ്പം സൗജന്യമായിട്ട് ആരോഗ്യകേന്ദ്രങ്ങളിൽ നിന്നും മരുന്ന് ലഭിക്കാറുണ്ട് അതൊരു വളരെ നല്ല മുന്നേറ്റമായിട്ട് ആരോഗ്യമേഖലയിലൊരു വളരെ നല്ല മുന്നേറ്റമായിട്ട് അതിനെ ഞാൻ കണക്കാക്കുന്നു